വയനാട് ജില്ലയിലെ പ്രാദേശിക ഭരണകൂടവും രാഷ്ട്രീയ തലങ്ങളും ഏതോക്കെയാണെന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് അതുപോലെ വാർഡ് തല പരമായിട്ടുള്ള ഭരണകൂടം വില്ലേജ് മുനിസിപ്പാലിറ്റി കോർപറേഷൻ താലൂക്ക് പോലുള്ള പ്രാദേശിക ഭരണകൂടങ്ങളാണ് അതിൽ തന്നെ ഇന്ത്യയുടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറെ പ്രശസ്തനായിട്ടുള്ള ഒരു എം പി യായ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും പിന്നീട് ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ ക്ഷേമ കാര്യങ്ങളിലാണെങ്കിലും മറ്റ് കാര്യങ്ങളിലാണെങ്കിലും വയനാടിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു രാഹുൽ ഗാന്ധി ഐ സി ബാലകൃഷ്ണനെപ്പോലുള്ള സുൽത്താൻ ബത്തേരിയുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എ യായ ഐ സി ബാലകൃഷ്ണനെപ്പോലെയുള്ള വ്യക്തികൾ വയനാടിന് വേണ്ടി ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഏറെ പ്രശംസനീയമാണ് എം ഐ ഷാനവാസിനെപ്പോലുള്ള എം എൽ എ മാരും എം പി മാരുമായിട്ടുള്ള ആളുകൾ നമ്മുടെ വയനാടിന് വേണ്ടി വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ നല്ല നല്ല റോഡുകൾ നല്ല നല്ല വിദ്യാഭ്യാസസ്ഥാപനങ്ങൾ നല്ല നല്ല വിദ്യാഭ്യാസസ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒരുപാട് ടെക്നോളജിക്കൽ പരമായിട്ടുള്ള സാങ്കേതികപരമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകിയ ഒരു വ്യക്തിയാണ് നമ്മുടെ എം ഐ ഷാനവാസ് നമ്മുടെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള വ്യക്തിയെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൻ്റെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം വരുന്ന പതിനാല് ജില്ലകളിലെ ഒരു ജില്ല മാത്രമായ വയനാടിൻ്റെ പൊന്നോമനപുത്രനായ വ്യക്തിയാണ് കാരണം ആരോഗ്യപരമായിട്ടുള്ള ഏത് വിഷയങ്ങളിലാണെങ്കിലും മെഡിക്കൽ മേഖലകളിലെ ഏതു ഒരു വിഷയത്തിലാണെങ്കിലും തൻ്റെ എല്ലാ വിധ പങ്കാളിത്തവും താൻ എന്നും ഉയർത്തിക്കാണിക്കും താൻ എന്നും പങ്കാളിയായിട്ടുണ്ടാകും എന്ന സത്യം എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്തുത വാക്യം നാം ഇന്നിവിടെ കടമെടുത്തിരിക്കുകയാണ്